ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇൻറ്റർനെറ്റിൻന്റെയൊക്കെ ഉപയോഗം കൊണ്ട് നമ്മുടെ മലയാള ഭാഷയിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് പണ്ട് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഈ ഇംഗ്ലീഷ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇൻറ്റർനെറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഫോണോ ലാപ് ടോപ്പോ കമ്പ്യൂട്ടറെല്ലാം യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇംഗ്ലീഷ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അപ്പോൾ നമുക്ക് മലയാളത്തിലൊക്കെ ഗൂഗിളിലൊക്കെ സർച്ച് ചെയ്യുന്നതിനായിട്ടുള്ളതൊക്കെ യൂസ് ചെയ്യാം മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യാം ഇപ്പോൾ എന്തെങ്കിലും ഒക്കെ നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ റിസൽറ്റൊക്കെ നമുക്ക് ഗൂഗിളിൽ കിട്ടും വിക്കിപീഡിയകളിലൊക്കെ വരാറുണ്ട് നമുക്ക് മലയാളത്തിൽ ഒരുപാട് കാര്യങ്ങൾ എന്താ വെച്ചാൽ എടുക്കാൻ പറ്റും പിന്നെയെന്നു പറയുന്നത് ഇപ്പോൾ മലയാളം ഇപ്പോൾ കുറച്ചു കൂടി ഈസി ആയിട്ട് എല്ലാവർക്കും ആക്സസ്സ് ചെയ്യാൻ കുറച്ചു കൂടി എളുപ്പമായിരിക്കും ഇപ്പോൾ മലയാളം പഠിക്കാനും വായിക്കാനൊക്കെ ഈ ഫോണിൽ കൂടുതൽ മലയാളമൊക്കെ ഉള്ളതു കൊണ്ട് മലയാളത്തിൽ ബുക്ക്സ് നോവൽസൊക്കെ വായിക്കുന്നത് കൊണ്ട് മെസ്സേജൊക്കെ വായിക്കുന്നതു കൊണ്ട് മലളം കുറച്ച് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ ഇപ്പോൾ സമൂഹത്തിൽ കുട്ടികൾക്കൊക്കെ സാധിക്കും